അതേല്ലോ ആരാണ് വിളിക്കുന്നത് അതെ അതെ അതെ നിങ്ങളെ പേരൊന്നു പറയാമോ ഓക്കെ ഓക്കെ ഓക്കെ ഞങ്ങൾ ഞങ്ങൾ പൊതുവേ ആ വഴി ഞങ്ങൾ പെട്രോളിങ്ങുള്ളതാണ് രാവിലെയും വൈകിട്ടുമായിട്ട് ഞങ്ങളെ പെട്രോൾ കാർസ് ആ വഴി പോകുന്നതാണ് സാധാരണ വേറെ എന്തെങ്കിലും സംശയാസ്പദമായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഈ മോഷ്ണങ്ങളെ എല്ലാം മോഷ്ണങ്ങളുള്ള പ്രതികളെ എല്ലാം ഞങ്ങൾ കണ്ടെത്തിയിരുന്നു ഇപ്പം നിങ്ങളുടെ വീടിനടുത്തായിട്ട് അങ്ങനെ എന്തെങ്കിലും സംശയാസ്പദമായി ആരേലും കാണുകയോ എന്തെങ്കിലും നടക്കുകയോ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഓക്കെ ഓക്കെ ഇങ്ങനെ ഞങ്ങൾ ഇന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ പെട്രോൾ കാർസിനെ വിടുന്നതാണ് പിന്നെ നിങ്ങളെ വീട്ടിൽ പട്ടിയോ അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഓക്കെ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള എന്തേലും വസ്തുക്കൾ വീട്ടിൽ വെച്ചിട്ടാണോ നിങ്ങൾ പോകുന്നത് ആ ഓക്കെ ഓക്കെ എന്നാൽ ഇത് ഞാൻ നോട്ട് ചെയ്തേക്കാം പെട്രോൾ കാർസ് എല്ലാം വിട്ടേക്കാം അപ്പോൾ ഓക്കെ